കണ്ണൂർ ജില്ലയിൽ മാത്രല്ല ഇപ്പോൾ ഈ സംസ്ഥാനത്ത് മുഴുവൻ ഗ കേരള അല്ല ഗവണ്മെൻറ്റിൻ്റെ ഹരിതകർമ്മസേന എന്നൊരു വകുപ്പ് വന്നപ്പോൾ നമ്മളുടെ വീട്ടിൽ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കെല്ലാം അവർ നമ്മളുടെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചിട്ട് ആ ഓരോ മാസത്തും അവർ വന്നിട്ട് ഹരിതകർമ്മസേന വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് പോകുന്ന കാഴ്ചയാണ് അതുകൊണ്ട് നമ്മുടെ പരിസ്ഥിതിക്ക് അധികം വലിയ മ ഇതൊന്നും വരുന്നില്ല നമ്മൾ അതിൻ്റെ ഈ നമ്മൾ ഓരോ മാസം അത് ഒരു സഞ്ചിയിലാക്കി പാക്കറ്റിൽ സഞ്ചിയിലാക്കി വയ്ക്കുവാണ് ചെയ്യാറ് അത് അവർ വന്നിട്ട് എടുത്തിട്ട് പോകും അതുകൊണ്ട് ഈ പരിസ്ഥിതി സംരക്ഷത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല വലിയൊരു വിജയമാണ് നമുക്ക് ആ ആ ഒര് ഈ ഇതിനെ കൊണ്ട് ഉണ്ടായത്